നമ്മുടെ വയനാട് ജില്ലയിൽ പ്രധാന സാമൂഹികക്ഷേമ വികസന പരിപാടികള് സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്താണ് പറയുക വിദ്യാഭ്യാസം നമ്മുടെ പിള്ളാർക്ക് ഇവിടുത്തെ എന്താണ് പാവപ്പെട്ട പിള്ളേർക്കും ആദിവാസികൾക്കും അതുപോലെതന്നെ താഴ്ന്ന ജാതിയിലുള്ള പിള്ളേർക്കും വിദ്യാഭ്യാസം കൊടുക്കുകയെന്നതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അതുപോലെ തന്നെ അവർക്ക് എന്താണ് പറയുക തീരെ താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള പിള്ളേർക്കെല്ലാം വിദ്യാഭ്യാസം കൊടുക്കുക അവരുടെ ആരോഗ്യസംരക്ഷണത്തിനു വേണ്ടി അവരുടെ വിദ്യാഭ്യാസം എന്താണ് സ്കൂളില് തന്നെ എന്താണ് പറയുക അവർക്ക് കഞ്ഞിയും പയറും അവർക്ക് വേണ്ട ആരോഗ്യത്തിന് ആരോഗ്യ സംരക്ഷണം എല്ലാ ഫുഡും മുട്ട പാല് തുടങ്ങി എല്ലാ കാര്യങ്ങളും അവർക്കവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെതന്നെ ദരിദ്ര കുടുംബങ്ങൾക്ക് തന്നെ എന്തെല്ലാമോ നമ്മുടെ സർക്കാര് തന്നെ ഓരോന്ന് അവർക്ക് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് അതേപോലെതന്നെ ദരിദ്രരായിട്ടുള്ളവർക്ക് എന്താണ് പറയുക അവർക്കൊരു എന്താണ് ഈ ഓണക്കിറ്റ് പോലെ ഓണത്തിൻ്റെ സമയത്ത് ഓണക്കിറ്റൊക്കെ കൊടുക്കുന്നു അവർക്കെന്താണ് അരി അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തുകൊടുക്കുന്നതാണ് നമ്മുടെ സർക്കാരെന്ന് പറയുന്നത് ആശ്രിതരുടെ പദ്ധതി എന്നുപറയുമ്പോള് വനിത സെല് പോലെയുള്ള എന്താണ് ഗർഭിണികൾക്ക് സാമ്പത്തിക സഹായമൊക്കെ കൊടുക്കുന്നുണ്ട് ഈ വനിത സെല് പോലെയുള്ള പദ്ധതികളൊക്കെയാണുള്ളത് അതെന്ന് പറയുന്നത് നമ്മുടെ ഗർഭിണികൾക്കാണെങ്കിലും എന്താണ് ദരിദ്രർക്കാണെങ്കിലും പഠിക്കാൻ പൈസയില്ലാത്തവർക്കും നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്കുമൊക്കെ എന്താണ് പറയുക നല്ല സഹായം ചെയ്യുന്നതാണ് ഈ വനിത സെല്ലെന്ന് പറയുന്നത് അതുപോലെതന്നെ കുറെ സർക്കാര് സ്ഥാപനങ്ങൾ നമുക്കുണ്ട് ഇപ്പോള് നമ്മുടെ ഇതിന് സാമൂഹ്യക്ഷേമ വികസന പരിപാടികളൊക്കെ ഇതാക്കുന്നത് തന്നെ നമ്മുടെ ഈ സർക്കാര് തന്നെയാണ് അതൊക്കെ ഒരു നല്ല പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെതന്നെ ഇതൊക്കെ ഒരു എന്താണ് പറയുക എല്ലാ ഇതിനും എന്താണ് പറയുക നല്ല നമ്മുടെ സർക്കാർ എല്ലാത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നില്ക്കുന്നുണ്ടെന്നുള്ളതാണ്